ഹലോ

ആ കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങള്ക്ക് എങ്ങനത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ആ വയനാട്ടില് ഇപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ആ അതേ ആ ആ അതേ വയനാട്ടിലേക്ക് വന്നാൽ മതി ആ അതേ അതെല്ലാം പിന്നെ ഇവിടെ വന്നിട്ട് റെഡി ആക്കിത്തരാം ആ ആയിക്കോട്ടെ ആ ആ ഇല്ല നിങ്ങള് നിങ്ങള്ക്ക് എത്രയാണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ ഇവിടെ ഉള്ളത് ഇപ്പം ഒരു ദിവസത്തേക്ക് രണ്ടായിരം വെച്ചിട്ടുള്ളതാണ് ഹോം സ്റ്റേ

ഓ അതെല്ലം നല്ല നല്ല അടിപൊളിയാണ് ആ അതേ ഒരു ദിവസത്തേക്ക് രണ്ടായിരം ഇപ്പോൾ കോമണ് ആയിന് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരേ പോലെത്തന്നെയായിന് വസ്ത്രധാരണമൊക്കെ ആയിക്കോട്ടെ ആ അതേ നുസ്രത്ത് എന്റെ വയനാട് കല്പറ്റ ഇപ്പോൾ ഇവിടെ ഏ ആ അതെ കോഴിക്കോട് ആണ് വീട്